നമ്മുടെ ഇന്ത്യയില് എല്ലാവര്ക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിഗ് ആണ് ചായ ചായ ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ളവർ വളരെ കുറവാണ് ഞാന് തന്നെയാണെങ്കിൽ ഒരു ദിവസം മിനിമം രണ്ട് ചായയെങ്കിലും കുടിക്കും എന്റെ വീട്ടിലുള്ളവര്ക്കാണെങ്കിലും ചായയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാന്ന് ചായ ഇല്ലാതെ ഒരു ദിവസവും ഇല്ല നമുക്കാര്ക്കും ചായ കുടിച്ചില്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഒക്കെ ആണെങ്കിൽ ചായ കുടിച്ചില്ലെങ്കില് തലവേദന എടുക്കും അങ്ങത്തെ ഒരു അവസ്ഥയാണ് ഒരു ദിവസം ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ചായനെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ കൂടെയുള്ളവർ അതായത് ഇന്ത്യയിലെ തന്നെ വെറൈറ്റി വെറൈറ്റി ചായ ഉണ്ടാവും ഇപ്പം നമുക്ക് കേരളത്തില് കിട്ടുന്ന അതെപോലെ ടെസ്റ്റുള്ള ചായ ആയിരിക്കില്ല നോര്ത്തിലേക്ക് പോകുമ്പം ഞാന് രാജസ്ഥാന് ഡല്ഹി അവിടുന്നൊക്കെ ചായ കുടിച്ചിരുന്നു അവിടെ നിന്ന് കുടിക്കുമ്പോള് അതിന്റെ ടെസ്റ്റ് വേറെ തന്നെയാണ് ചായയെല്ലാം വ്യത്യാസ്ഥമാണ് അത് ഇപ്പം ചോക്ലേറ്റി ഉണ്ട് മസാല ടീ ഉണ്ട് അതുപോലെ കടുപ്പമുള്ള ചായ ഉണ്ട് കടുപ്പം കുറഞ്ഞ ചായ ഉണ്ട് വെറൈറ്റി വെറൈറ്റി ചായ നമുക്ക് ആകാം അപ്പോൾ ഒരു ദിവസം ഞാന് ഊട്ടി വയനാട് ട്രിപ്പ് പോയിനി അങ്ങനെ ട്രിപ്പ് പോയപ്പോൾത്തന്നെ ഞാന് പല സ്ഥലത്തുന്ന് ചായ കുടിച്ചിരുന്നു എല്ലാം വെറൈറ്റി വെറൈറ്റി അന്ന് അത് എങ്ങനത്തെ ആയാലും ചായ കുടിക്കുന്നത് വേറെയൊരു എക്സ്പീരിയന്സ് ആണ് നമ്മൾ ചായ ഫാക്ടറിയില് ടീ ഫാക്ടറിയില് പോയിരുന്നു അവിടുന്ന് ഒരു ചായ കിട്ടിയിരുന്നു ഭയങ്കര ടെസ്റ്റ് ആയിരുന്നു എല്ലാവര്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ അമ്മക്കെല്ലാം പിന്നെ പിന്നെ വാങ്ങി പോയി കുടിക്കുന്നുണ്ടായിരുന്നു ആ ചായ കാരണം അമ്മയെല്ലാം ചായക്ക് ഭയങ്കര അഡിക്ക്റ്റ് ആണ് അതായത് ചായ ഇല്ലാതെ ഒരു ദിവസം ഇല്ല എന്നാണ് അമ്മേരെ ഒരു ഇത് ചായ ഇല്ലാത്തൊരു ദിവസം എന്നു പറഞ്ഞാൽ അമ്മയ്ക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രയും ചായെനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് നല്ലോണം അമിതമായി കുടിക്കുകയൊന്നും ചെയ്യില്ല പക്ഷേ ചായ വേണം ഒരു ദിവസം അങ്ങനെയാണ് അപ്പം എന്റെ വീട്ടില് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇത് തട്ടികൂട്ട് ചായയാണ് മീൻസ് പെട്ടെന്ന് വരും പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ചായ ആണ് ഇത് അപ്പം പാൽ വീട്ടിലെ പാൽ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുമ്പോള് ഉണ്ടാക്കുന്ന ഒരു ചായയാണ് വെള്ളം തിളപ്പിക്കും എന്നിട്ട് വെള്ളയെടുത്ത് ആവിശ്യത്തിന് വെള്ളം എടുത്ത് തിളപ്പിക്കുക എന്നിട്ട് അത് തിളക്കുമ്പോൾ ചായ പൊടി ഇടുക പിന്നീട് ഇതാകുമ്പോൾ അതിലേക്ക് തന്നെ പഞ്ചസാര ഇടുക പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് പാൽ ഇട്ടിട്ട് അടിക്ക ഇതാണ് ഇത് വീട്ടിലുണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് ചായയാണ് അതെ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാം എല്ലാം നമ്മുടെ വീട്ടിലെല്ലാം സാധനങ്ങള് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ തരത്തിലൊരു ചായ ഉണ്ടാക്കാം ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പാലും എല്ലാം ഉണ്ടെങ്കിൽ പാൽ ആദ്യം തിളപ്പിക്കുക തിളച്ച് വരുമ്പോള് അതിലേക്ക് ചായ പൊടി ഇടുക എന്നിട്ട് ആവിശ്യത്തിന് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഏലയ്ക്കയും അതൊക്കെ കൂടി ചേര്ത്തിട്ടും അങ്ങനെയും ഉണ്ടാക്കാം നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങള്ക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ചായ ഉണ്ടാക്കാം ഇപ്പം ചിലവർക്ക് ഏലയ്ക ഇടുന്നത് ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അതിനനുസരിച്ച് നമ്മള്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങള് ചേര്ത്ത് ചിലവർ ഇഞ്ചിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ടാവാം അത് അത് അവരവരോടുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് സാധനങ്ങള് ചേര്ത്ത് നമുക്ക് ചായയുണ്ടാകാം അതുപോലെ ഇപ്പം ഇന്ത്യയിലെ തന്നെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് ചായകൾ നമുക്ക് കിട്ടും ഓരോ സ്ഥലത്തിന് അനുസരിച്ചും വെറൈറ്റി വെറൈറ്റി ചായ ഉണ്ടാവും ഇപ്പം നമുക്ക് കേരളത്തിൽ കിട്ടുന്നതുപോലെ തന്നെ ആയിരിക്കില്ല ഇപ്പം നമ്മൾ റെയില്വേയിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ചായെടെ ടെസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചായെടെ ടെസ്റ്റും വ്യത്യാസമുണ്ട് ഇപ്പം നോര്ത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ചായടെ ടെസ്റ്റിലും വ്യത്യാസം ഉണ്ട് എന്റെ വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്